ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ ഫുട് ബോൾ അക്കാദമികളുണ്ട് ക്രിക്കറ്റ് ക്ലബ്ബുകളുണ്ട് അങ്ങനെ വിവിധ തരം സ്പോർട്സുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സെൻറ്ററുകളൊക്കെയുണ്ട് അപ്പോൾ ഫുട് ബോൾ ക്ലബ്ബുകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെയാണെങ്കിൽ ഈവനിംഗ് ബേച്ചിലായിട്ടും സാറ്റർഡേ സൺഡേയൊക്കെയായിട്ടും ഒക്കെ പ്രാക്ടീസ് കൊടുക്കുന്ന സെൻ്ററുകൾ ഉണ്ട് അപ്പം നമ്മൾ മാസം ഒരു നിശ്ചിത തുക ആയിരം രൂപ അങ്ങനെ ഒരു നിരക്കിൽ മാസം മാസം കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് അവിടെ പരിശീലനം നൽക അവർ നൽകിവരുന്നു ഇപ്പം കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്കും ഉള്ള പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട് അവർക്ക് പഠനവും ഈ പരിശീലനവും ഒരുമിച്ച് നമുക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെതന്നെ ക്രിക്കറ്റിൽ ആണെങ്കിലും സ്കൂളുകളിൽ തന്നെയാണെങ്കിലും പരിശീലനം നൽകുന്ന സ്കൂളുകളുണ്ട് അതുപോലെതന്നെ പുറത്തുള്ള സെൻ്ററുകളും പരിശീലനം നൽകിവരുന്നുണ്ട് പിന്നെ ടെന്നീസ് ഉണ്ട് ഷട്ടിൽ ഉണ്ട് അങ്ങനെ വിവിധതരം പരിശീലന സ്ഥാപനങ്ങളുണ്ട് എന്തിന് റോളർ സ്കേറ്റിങിന് വരെ ഇവിടെ നമ്മുടെ നാട്ടിൽ പരിശീലനം നൽകുന്നുണ്ട് അതൊക്കെ ഒരു വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്